നമ്മുടെ അടുത്തൊക്കെ മഴ പെയ്യുമ്പോൾ ചെയ്യുന്നത് എന്നു വച്ചാൽ സ്ഥലം വൃത്തിയാക്കും കാടോക്കെ പരണ്ടി കളയും അതേപോലെ ചെടിയുടെ ചുറ്റും കമ്പി കുത്തി വേലിയൊക്കെ കെട്ടും വേറെയെന്തോ കല്ല് അങ്ങനത്തെയെന്തോ വച്ച് ചളിയൊക്കെ വയ്ക്കും അത് പോവാതിരിക്കാന്

ആ ടൈമ് നമ്മൾ നോക്കിയിട്ട് കുറെ ചെടികള് നടുകയൊക്കെ എല്ലാം ചെയ്യും അതേപോലെതന്നെ ഞങ്ങള് ചെയ്യുന്നത് ചാണകം ഇട്ടു കൊടുക്കും ഉണങ്ങിയ ചപ്പുകളൊക്കെ ഇട്ടു കൊടുക്കും അപ്പം അതൊക്കെ ചീഞ്ഞ് വളമായിട്ട് ചെടി വളരാന് നല്ലോണം സഹായിക്കുന്നതായിരിക്കും